ഹലോ ഇത് മിന്നൂസ് കാറ്ററിംഗ് സെൻ്റർ അല്ലേ എനിക്ക് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു ഭക്ഷണ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നടത്തുന്നത് പത്തൊൻപതാം തീയതി ആണ് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡിന്നർ ടൈപ്പ് ഭക്ഷണം ആണ് നമ്മൾ ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് അപ്പം സ്റ്റൂ പിന്നീട് ചോറ് ബീഫ് ഫ്രൈ മീൻകറി മോരുകറി തോരൻ അച്ചാർ എന്നിവ ഉൾപ്പെടുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടാതെ ചിക്കൻ ഫ്രൈയും പിന്നെ ഐസ്ക്രീമ് അപ്പോൾ ഇതിനെല്ലാം ആയിട്ട് നിങ്ങൾ ഒരു പ്ലേറ്റിന് എത്ര ചാർജ് ചെയ്യും അത് അറിയണം കൂടാതെ നമ്മൾ സമയം പറയുമ്പോൾ ആ സമയത്തിന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഭക്ഷണം ഇവിടെ എത്തിക്കാൻ സാധിക്കുമോ എന്നും എനിക്ക് അറിയണം എങ്കിൽ മാത്രമേ എനിക്കത് ഓർഡർ ചെയ്യാനായി സാധിക്കുകയുള്ളു അപ്പോൾ ഒരു പ്ലേറ്റിന് നൂറ്റി അൻപതു രൂപ നൂറ്റി അൻപതുതുരൂപ കുറച്ചു കൂടുതൽ അല്ലെ ഒരു നൂറ്റി നാൽപത് നൂറ്റി മുപ്പതിനൊക്കെ തരാമെങ്കിൽ ഞാൻ ഓർഡറ് നൽകാമായിരുന്നു നിങ്ങൾ പക്ഷെ എപ്പോൾ എത്തിക്കും ഒരു മണിക്കൂറിനു മുൻപേ എത്തിക്കാൻ സാധിക്കുമോ അല്ലായെങ്കിൽ അത് നമ്മുടെ ഈ ചടങ്ങിനെ തന്നെ അത് ബാധിക്കുന്ന കാര്യആണ് ഓക്കേ ആ ഒരുമണിക്കൂറിനു മുൻപ് എത്തിക്കും ഓക്കേ ശരി ഓക്കേ ഓക്കേ ഓക്കേ ആ അത് ഞാൻ കറക്റ്റ് ഡേറ്റും അതിനുള്ള എത്ര എത്ര പ്ലേറ്റ് വേണം എന്നുള്ളതും ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കേ ഹലോ ഇത് സ്വിഗ്ഗി അല്ലെ ഞാ ൻ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താനായിട്ട് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിന്നർ ടൈപ്പ് ഓഫ് ഫുഡ് ആണ് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് ഒരു പ്ലേറ്റിന് നിങ്ങൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് നൂറ്റി എൺപത് ഓക്കേ അതിൽ എന്തൊക്കെ ഉൾപ്പെടും ഓക്കേ ഓക്കേ എത്ര മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് തരാൻ സാധിക്കും നമ്മൾക്ക് പന്ത്രണ്ടു മണിക്കാണ് നമ്മൾ ആഘോഷിക്കുന്നത് എങ്കിൽ എനിക്ക് ഒരു പതിനൊന്നുമണി ആകുമ്പൊൾ സാധനം എല്ലാം കിട്ടിയിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓർഡറ് തരികയുള്ളു ഈ റേറ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധിക്കുമോ നൂറ്റി അൻപത് ഓക്കേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർഡർ പിന്നീട് വിളിച്ചു നൽകുന്നതാണ് ഓക്കേ ശരി ഹലോ ഇത് അന്ന കാറ്ററിംഗ് സെൻ്റർ അല്ലെ ഓക്കേ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നമ്മളൊരു ഡിന്നർ പാർട്ടി കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്ലേറ്റിന് ചാർജ് ചെയ്യുന്നത് ജ ഇരുനൂറു രൂപയോ അതിൽ എന്തെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തും ഓക്കേ മട്ടൻ വേണ്ട ബാക്കി ചിക്കൻ മീൽ ബാക്കി ഐറ്റംസ് ഒക്കെ മതി പിന്നെ ഫുഡിങ്ങ് ആയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ചാർജ് എത്രയാണ് ഒരു പ്ലേറ്റിന് ഇരുനൂറോ ഓക്കേ ഇതിനെന്തെങ്കിലും നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തു തരുമോ നിങ്ങൾ നമ്മൾ പറയുന്ന ടൈമിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങള് ഭക്ഷണം എത്തിക്കാൻ സാധിക്കോ ഓക്കേ ഓക്കേ ഓക്കേ ഞാൻ പ്ലേറ്റിൻ്റെ എണ്ണവും ഡേറ്റും ഒക്കെ ഞാൻ താങ്കളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഓക്കേ